എൻ്റെ ഇ പി എഫ് പാസ്ബുക്ക് ഇ പി എഫ് പോർട്ടലിലേക്ക് എനിക്ക് ലോഗിൻ ചെയ്യുന്നതിന് സാധിച്ചാൽ മാത്രമേ എനിക്ക് പാസ്ബുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിനും എൻ്റെ അക്കൗണ്ട് നിരീക്ഷിക്കുന്നതിനും യഥാസമയം പാസ്ബുക്ക് ഡൗൺലോഡെയ്ത് എടുക്കാനുള്ള ഓപ്ഷനുകൾ ഞാന് വേണ്ട സമയത്ത് തെരഞ്ഞെടുത്ത് ഞാൻ നിർവഹിക്കുന്നതിന് ഞാനൊരുക്കമാണ് അതുകൊണ്ട് എനിക്ക് അതിനുള്ള ഒരു സാഹചര്യം ലഭ്യമാകണം ഇ പി എഫ് പോർട്ടലില് ലോഗിൻ ചെയ്ത് മാത്രമേ അതിന് എനിക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ സാധിക്കയുള്ളൂ അല്ലാത്തപക്ഷം ഓഫീസുകളില് പോയി അവിടെ ഒരുപാട് സമയം ചെലവാക്കേണ്ടതൊക്കെയായിട്ടുണ്ട് അപ്പോഴെന്റെ അക്കൗണ്ട് നിരീക്ഷിക്കുന്നതിന് ഉള്ള ഒരു മാർഗമായിട്ടാണ് ഞാനത് കാണുന്നത് അത് ഞാൻ വേണ്ട സമയത്ത് എനിക്ക് ഞാനത് പോർട്ടൽ ലോഗിൻ ചെയ്ത് ഇത് ചെയ്തുകൊള്ളാമെന്ന് ഉറപ്പ് നൽകുന്നു